ഇപ്പം ന്യൂസ് ചാനലായിക്കോട്ടെ ട്വന്റി ഫോറ് പെട്ടെന്ന് വന്നു ക്ലിക്കായ ഒരു വാർത്താ ചാനലാണ് അതുപോലെ തന്നെ മനോരമ മാതൃഭൂമി വൺ ഏവൺ അതുപോലെതന്നെ അങ്ങനെ ഒരുപാട് കൗമുദി അങ്ങനെയുള്ള പത്രങ്ങൾ പോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ വാർത്താ മാധ്യമ ചാനലുകളുമുണ്ട് ഓൺലൈനിൽ ആയിക്കോട്ടെ ലൈവ് പോലും നമ്മൾ യൂട്യൂബുകളും കാര്യങ്ങളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പം ഒരു വാർത്തയെ നമ്മൾ മൂന്നും നാലും ചാനലുകളിൽ അല്ലെങ്കിൽ പത്രങ്ങളും ഡിഫ്രെൻ്റ് ആയിട്ടാണ് അവർ എഴുതുന്നത് നമുക്ക് സത്യത്തിൽ ഏതാണ് ശരി എന്നു വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും ചിലപ്പം അവർ അത് എഴുതി വളച്ചൊടിച്ചു കാര്യങ്ങളൊക്കെ എഴുതാൻ അപ്പം വാർത്തകള്ക്ക് ക്ഷാമം ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഞ്ചും ആറും മണിക്കൂർ അത് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അത്രയ്ക്കും വാർത്ത ഇപ്പം നമുക്ക് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഇന്നത്തെ ഒരു എന്താണ് പറയുക ഹെഡ് ലൈനും കാര്യങ്ങളും അതൊക്കെ ഒരു ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചു ഒരു കാര്യവും ഉണ്ടാവില്ല ഇപ്പം ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ ആ ടൈമിൽ എല്ലാ കാര്യങ്ങളും അവർ കുത്തിപ്പൊക്കി കൊണ്ട് വരും അത് കഴിഞ്ഞു പിന്നെ കുറച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആ വാർത്തകൾ പോലും ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഇപ്പം ഉള്ളത്